എനിക്ക് വരയ്ക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കാൻ തോന്നാത്ത ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട് കാരണം നമുക്ക് ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ ആരെങ്കിലും വരുമ്പോഴോ എന്തെങ്കിലും ജോലികൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴോ വരയ്ക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ചിത്രരചനയിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് മനസ്സിന് ശാന്തവും കുളിർമയും കിട്ടുന്ന സമയങ്ങളിൽ മാത്രമേ നമുക്ക് ചിത്രരചനയിൽ വര വരയ്ക്കുവാനായിട്ട് നമ്മൾ നിന്നിട്ട് കാര്യം ഉള്ളു കാരണം എന്തെന്ന് വച്ചു കഴിഞ്ഞാൽ വരയ്ക്കുക എന്ന് പറയുന്നത് അതായത് നമ്മളുടെ നമ്മളെ ഉള്ളിലുള്ള ഒരു കല പുറത്തു വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ശാരീരികവും മനസികവുമായും ഒരു സന്തോഷം ഉള്ള സമയത്താണ് വരുന്നത് അപ്പോൾ നമ്മുടെ കൈകളിലൂടെ നമ്മുടെ മാനസികമായി ഉണ്ടാകുന്ന ഒരു സന്തോഷം പേപ്പറിൽ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദിനചര്യകളും മറ്റ് ജോലികളും ചിത്ര രചനയെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വീട്ടിൽ ജോലിക്കാർ ഇല്ലാതെ നമ്മൾ തന്നെയാണ് വീട്ടു ജോലികൾ മുഴുവനും ചെയ്യുകയും പുറത്തുള്ള ജോലികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തുകയാണ് കണ്ടെത്തിയാലേ പറ്റുകയുള്ളു ജോലിക്ക് പോയി തിരിച്ച് വരുമ്പോൾ രാവിലെ ഒൻപത് മണിക്ക് ജോലിക്ക് പോയാൽ അഞ്ചരയ്ക്ക് തിരിച്ചു വരും അതുകഴിഞ്ഞ് വീട്ടിലെ ജോലികൾ ചെയ്യണം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വിശ്രമ സമയം കിട്ടുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ ചിത്രരചനയിൽ പങ്കെടുക്കണം അത് മനസ്സിന് കുളിർമയേകുന്നതും മനസ്സിന് സന്തോഷമേകുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് മാധ്യമങ്ങളിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് മുഖാന്തിരം നമ്മുടെ അത് മനസ്സിൽ ഒരു കോറിയിട്ടത് പോലെ വരികയും അത് നമ്മുടെ ഈ കടലാസ്സിൽ വരയ്ക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ചിത്രരചന കൊണ്ട് നമ്മുടെ മറ്റുള്ള ജോലികളെ ബാധിക്കുമോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ബാധിക്കും എന്നിരുന്നാലും നമ്മൾ അത് ഒരു പരിധി വരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ജോലികൾ ഇഷ്ടം പോലെ ഉള്ള സമയത്ത് നമുക്ക് ചിത്രരചനയിൽ പങ്കെടുക്കാനായിട്ട് കഴിയില്ല ആ സമയം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വച്ചു കഴിഞ്ഞാൽ ടൈം ഷെഡ്യൂള് വയ്ക്കണം ഞാൻ ഇത്ര സമയം കൊണ്ട് ഇത്ര ജോലികൾ ചെയ്തു തീർക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിത്രരചനയിൽ പങ്കെടുക്കും ചിത്രരചനയ്ക്ക് വേണ്ടി സമയം മാറ്റിവയ്ക്കും എന്ന് നമ്മൾ തന്നെ ഉറച്ച ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ചിത്രരചനയേയും വീട്ടു ജോലിയേയും മറ്റ് കാര്യങ്ങളെയും നമുക്ക് മുന്നോട്ട് കൊണ്ടു പോകാനായിട്ട് സാധിക്കും വരയ്ക്കുവാനുള്ള പ്രചോദനം നമുക്ക് നേടി എടുക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ മനസ്സ് ശാന്തമായിരിക്കണം മനസികമായും ശാരീരികമായും ഉല്ലാസപരമായ കാര്യങ്ങൾ അതായത് വിനോദ യാത്ര പോലുള്ളത് യാത്രകൾ പോയി യാത്രകൾ പോകുന്നത് മുഖാന്തിരം നമുക്ക് പല പല ഈ സീനറികൾ കാണാൻ കഴിയും ആ സീനറികളെ നമുക്ക് പത്രത്തിലൂടെ പേപ്പറിലൂടെ വരച്ച് നമുക്ക് സമൂഹമാധ്യമങ്ങളിൽ എത്തിക്കുവാനായിട്ട് കഴിയും